ഡെങ്കിപ്പനി മലേറിയ ഇങ്ങനെ കൊതുകിൽ നിന്ന് ജനിക്കുന്ന രോഗങ്ങൾ ധാരാളമായിട്ടുണ്ട് കൊതുക് പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ പഞ്ചായത്തകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വിവിധങ്ങളായി നടപടികൾ ആദ്യമൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതൊന്നും ഫലപ്രദമായിട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ ശുചിമുറി മാലിന്യങ്ങൾ പോലും ഓടകളിലേക്ക് ഒഴുക്കി വിടുക ജലസ്രോതസ്സുകളെ മലിനമാക്കുക വെള്ളം കെട്ടി കിടക്കാൻ അനുവദിക്കുക അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ മറ്റും ചെയ്യുമ്പോൾ അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്നു അത് സമൂഹത്ത് ആയിരക്കണക്കിന് മുട്ടകളാണ് വിരിഞ്ഞ് കൊതുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൽ തന്നെ ഡെങ്കി കൊതുകുകളെ ഒക്കെ പ്രത്യേകം കണ്ടാൽ തിരിച്ചറിയാം ചെറിയ വെള്ള വരപോലെ ഉള്ള ചില പാടുകൾ അതിൻ്റെ ശരീരത്തിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കൊതുക് മനുഷ്യൻ ഒത്തിരി ഏറെ രോഗങ്ങൾ ഇങ്ങനെ പരത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള രീതികൾ മനുഷ്യൻ ക്ലാസ് കൊടുത്തോണ്ട് മാത്രമായില്ല ക്ലാസ് കേട്ടു കഴിഞ്ഞാൽ കൊതുക് പോകില്ല അപ്പോൾ കൊതുകുകളെ നിർമാർജനം ചെയ്യാൻ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ അതിൻ്റെ മൊട്ടയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കൊതുകിനെ നശീകരിപ്പിക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പും സർക്കാരും സ്വീകരിക്കാണ് ചെയ്യേണ്ടത് അത് നേരത്തത്തെ ഈ ഓടകളിലും മറ്റും പുക പുകച്ച് കൊതുകുകളെ നീക്കം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ ചില രാസ വസ്തുക്കൾ കൊണ്ട് ഒന്ന് ഒഴിച്ച് കൊതുക് മുട്ട ഇടുന്ന സ്ഥലങ്ങളെ ഒക്കെ നശിപ്പിക്കും അതുപോലെ ഡ്രൈ ഡേ ആചരിക്കും ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തുറന്നിരിക്കുന്ന ചിരട്ടകൾ അതുപോലെ റബർ പാൽ എടുക്കുന്ന കപ്പുകൾ വീടിൻ്റെ ഒക്കെ ചുറ്റുപാടുമൊക്കെ ഉള്ള കൊക്കോ തൊണ്ടുകൾ ജാതി തൊണ്ടുകളൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടുള്ള ഒത്തിരി ഏറെ സ്ഥലങ്ങൾ അതെല്ലാം നോക്കി കണ്ടുപിടിച്ച് അത് കമഴ്ത്തി കളഞ്ഞ് അതുപോലെ ദിവസങ്ങളായിട്ട് ഞാലുകളിലും മറ്റുമിരിക്കുന്ന വെള്ളം ഒക്കെ മറിച്ച് കളഞ്ഞ് അങ്ങനെ പഞ്ചായത്തിൻ്റെ നേതൃത്തത്തിലോ അതുപോലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് കുട്ടികളെ കൊണ്ടും ചെയ്യിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു പൊതു ഇടങ്ങളിൽ ഒക്കെ ഇങ്ങനെയുള്ള കൊതുകുകൾ പെരുകുന്നതിനെ തടയുന്നതിനുള്ള പല രീതികളും ഉപാധികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെയും അതിൽ നിന്നൊക്കെ പിന്നാക്കം പോയിരിക്കുകയാണ് ഒരു രോഗം വരുമ്പോഴാണ് അതിനെ നിർമ്മാർജനം ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുക രോഗം വരുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെപ്പറ്റി ആരും തന്നെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഒരു രോഗം ഇപ്പോൾ ഡെങ്കിപ്പനി ആണെങ്കിൽ ഡെങ്കിപ്പിനി ഒരാൾക്ക് വന്ന് രണ്ട് പേർക്ക് വന്നു അതൊരു അൻപതോ നൂറോ ഒരു പ്രദേശം മുഴുവൻ വ്യാപിക്കുമ്പോഴേക്കും ആണ് അധികാരികൾ കണ്ണ് തുറക്കുക അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മാസാമാസം ശമ്പളം വാങ്ങി അവർ വീട് കയറി ഇറങ്ങുകയോ അല്ലെങ്കിൽ അവിടെ കഥ പറഞ്ഞിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അല്ലാതെ എന്തൊക്കെയാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് എന്തെല്ലാമാണ് പോം വഴികൾ എന്നതിനെപ്പറ്റി കാര്യക്ഷമമായ ഒരു ചർച്ച ഒരിടത്തും നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളുടെ ഈ പരിസര മാലിന്യങ്ങൾ ആ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാൻ തക്കതായിട്ടുള്ള പരിപാടികൾ ഒന്നും തന്നെയില്ല ഉദാഹരണത്തിന് ഇപ്പോൾ പ്ലാസ്റ്റിക് നിർമാർജനം നടത്തണം എന്ന് പറയുകയും ഈ പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്യുന്നില്ല ശരിക്ക് പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്യാന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ശേഖരിക്കുന്നത് പിന്നെ എവിടെലും കൊണ്ട് പോയി കൂട്ടിയിടുന്നു അതിന് വേണ്ടത്ര അത് പണ്ട് ഉപയോഗം ആയിരിക്കാവുന്ന വിധത്തിലേക്ക് ഒരു രീതി എത്തുന്നില്ല പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാതെ ഇരിക്കുക പ്ലാസ്റ്റിക്കുകൾ ഉൽപാദിപ്പിക്കാതെ ഇരിക്കുകാന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനം പ്ലാസ്റ്റിക്കുകൾ ധാരാളമായിട്ട് ഉൽപാദിക്കപ്പെടുകയും അത് വിറ്റഴിക്കപ്പെടുകയും ചെയ്തിന് ശേഷം വീണ്ടും അതിനെ ശേഖരിക്കാൻ വേണ്ടി ആളുകൾ ഫീസ് കൊടുത്ത് ഫീസ് സർക്കാർ കൊടുക്കുക ഇല ജനങ്ങളിൽ നിന്ന് കുറച്ച് ഫീസ് വാങ്ങുകയും അതിൻ്റെ പകുതി പോലും എടുക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുകയും അതിൽ നിന്ന് പോലും സർക്കാർ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതി പ്ലാസ്റ്റിക്ക് വിറ്റഴിച്ച് വരുമാനം നേടുന്നു പ്ലാസ്റ്റിക് തിരികെ ശേഖരിച്ച് വരുമാനം നേടുന്നു എങ്ങനെ സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കാമെന്ന് ഉള്ളതല്ലാതെ ജനോപകാരപ്രദമായ ഈ രോഗ പ്രതിരോധ സംഭവങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല അഥവാ ഇതിനൊക്കൊരു പ്രതിരോധ കുത്തിവെയ്പ്പ് എടുക്കണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ഒന്നും അതിന് ആവശ്യമായി മരുന്നുകൾ ഒന്നും ലഭിക്കുന്നില്ല സ്വകാര്യ ആശുപത്രികളിലേക്ക് മരുന്ന് സൗജന്യമായിട്ട് എത്തിക്കാൻ സർക്കാരിത് ചെയ്യണം സർക്കാർ ആശുപത്രികളിൽ ഒരിക്കലും മരുന്ന് കാണില്ല അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് പോയിട്ട് വലിയ പ്രയോജനമില്ല ഇപ്പോൾ കോവിഡ് വന്നു കോവിഡ് വ്യാപിച്ചു ഇനി ഇപ്പോൾ മരുന്നുണ്ടായിരുന്നു മരുന്നിന് പലപ്പോഴും വില കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ഈ വിലയൊക്കെ സർക്കാരുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഈടാക്കുകയോ ഒക്കെ ചെയ്തിട്ടും അവസാനം ഇതിൻ്റെ പാർഷ്വഫലങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞത് പോലാണ് ഓരോ രോഗത്തിനും മരുന്നുകൾ കണ്ടുപിടിച്ച് മനുഷ്യനെ മരുന്നുകൾക്ക് അടിമയാക്കുന്നതിനു പകരം രോഗങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക അതിന് സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് നടപടികൾ ഉണ്ടാവുക പ്രത്യേകിച്ച് ഓരോ വർഷവും കടന്നു വരുന്ന ഈ ഡെങ്കിപ്പനി പോലുള്ള കാര്യങ്ങളെ ഫലപ്രദമായി ചെറക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുക ഇതൊരിക്കലും സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്തത് നമ്മുടെ നാട്ടിലെ ഒരു പാരാജയമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഒക്കെ പറയുമെങ്കിലും ഇത് കൊതുകുകളുടെ സ്വന്തം നാടാണ് എവിടെയെങ്കിലും ഒക്കെ കിടന്നാൽ കൊതുകുകൾ മോളിലേക്ക് പൊക്കി പിടിച്ചോണ്ട് പോകാവുന്ന വിധത്തിൽ അത്ര മാത്രം മനുഷ്യന് ശക്തമായി ആക്രമിക്കുന്ന രീതി ഒരു നിക്കറിട്ട് ഒരു ബർമ്മുടയിട്ട് ഒരു മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റില്ല കാരണം ചുമ്മാതെ ഒരിടത്ത് കാലുകൾ ചലിപ്പിക്കാതിരുന്നാൽ പോലും അവൻ്റെ കാലിൽ നൂറ് കണക്കിന് കൊതുകുകൾ പൊതിയുന്ന ഒരു രീതി ഇതൊക്കെ മഴക്കാലം ആരംഭിക്കുന്ന മുമ്പ് തന്നെ പരിസരം ശുചീകരണങ്ങൾ നടത്തി വേണ്ടത്ര ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ രോഗങ്ങൾ ധാരാളമായിട്ട് പെരുകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയോം വേണ്ട